ഹലോ ഹലോ ഡോക്ടർ എനിക്ക് പനിയും ജലദോഷമൊക്കെയാണ് അപ്പം നല്ല രീതിയിലുള്ള മേലും കയ്യും വേദനയൊക്കെ ഉണ്ട് അപ്പം അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതായിരുന്നു ആ ഒരു നാല് ദിവസമായി ഞാൻ ഇവിടെ വന്ന് മരുന്ന് മേടിച്ച് പോയതാണ് അത് കുറവില്ല ആ പാരസറ്റമോള് തന്നെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ മൂന്നു നേരത്തേക്കാണ് എഴുതി തന്നിട്ടുള്ളത് അപ്പം മൂന്നുനേരം കഴിക്കുന്നുണ്ട് അതുകൂടാതെ ഇപ്പം മോർണിംഗ് ഒന്നും പനിയില്ല രാത്രി മാത്രം പനി വരികയാണ്

ആ കഴിക്കുന്നുണ്ട് ഇതിപ്പം തൊണ്ടവേദനയൊക്കെ കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം കഴിക്കാൻ പറ്റുന്നില്ല ആ മേലും കയ്യും വേദനയുണ്ട് ആ ആവി പിടിക്കുന്നുണ്ട് രണ്ടുനേരം പിടിക്കുന്നുണ്ട് എന്നിട്ടും കുറവില്ല ഇങ്ങനെ ജലദോഷം കട്ട കൂടിയിട്ട് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു വിക്സ് ഇട്ടിട്ടല്ല വെറുതെ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് എന്നിട്ടും കുറവില്ല ഞങ്ങൾ അഞ്ചു ദിവസം മുമ്പ്

ആ ടെസ്റ്റ് ചെയ്യാം

ആ ആയിക്കോട്ടെ വരാം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ ബുദ്ധിമുട്ട് എന്നു പറയുമ്പോൾ ഇപ്പോൾ രാത്രി മാത്രം ഇടവിട്ട് വരുന്ന പനി മാത്രമേ ഉള്ളൂ പ്രശ്നം

ആ ആയിക്കോട്ടെ ചെയ്യാം